ഹാലോ ക്യാബല്ലേ ഞാനിന്നലെ ക്യാബ് ബുക്ക് ചെയ്തിരുന്നു മാനന്തവാടി ടൗണിൽ നിക്കുന്നയാൾ പറഞ്ഞിരുന്നത് പത്ത് മണിക്ക് വരാന്നായിരുന്നു പറഞ്ഞിരുന്നത് ഇത്രനേരായിട്ടും വന്നിട്ടില്ല ഒരു മണിയായി ഇന്നലെയെല്ലാം പറഞ്ഞു സെറ്റാക്കിയതായിരുന്നു ഞാന് ഭക്ഷണം പോലും കഴിക്കാണ്ടാണ് നിൽക്കുന്നത് ഒന്ന് വേഗം ക്യാബിനെ വിളിച്ചിട്ട് അവരെ വിളിച്ചുപറയാവോ ഓക്കെ ഓക്കെ ഒന്ന് വേഗം വിളിക്കുമോ ഓക്കെ ആ കാര്യവാ പറഞ്ഞേ അതെ ഓക്കെ ഓക്കെ അവര് വന്നോണ്ടിരിക്കുന്നേയുള്ളു വേഗം വരാൻ പറയ് എനിക്ക് കുറെ സ്ഥലത്ത് പോകാനുണ്ട് നമ്മള് ഇന്നലേയും ബുക്ക് ചെയ്ത് പറഞ്ഞതല്ലേ ഓക്കെ ഓക്കെ ഓക്കെ ടയർ പഞ്ചറായതാണോ ഓക്കെ ഓക്കെ എവിടെത്തി കൽപ്പറ്റയോ ഇനി എപ്പവരും കാൽപറ്റേന്ന് എപ്പോൾ എത്താനാണ് മാനന്തവാടിക്ക് എപ്പം എത്താന ഒരു മണിയായി എനിക്ക് മൂന്ന് മണിക്ക് കറക്ട് എത്തേണ്ടതാണ് ഓക്കെ ഓക്കെ എന്നാൽ വേറെ ക്യാബ് വിട് വേഗം ഓക്കെ ഓക്കെ ഓക്കെ എന്നാൽ വേഗം ക്യാബ് വിടൂ മലബാറിൻ്റെ അവിടെ ഞാനുണ്ട് മാനന്തവാടി